ഇപ്പോൾ ജോലിക്ക് പുറത്തുള്ള ഹോബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡ്രൈവിങ്ങിലാണ് ഞാൻ കൂടുതലായിട്ടും എൻ്റെയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വണ്ടിയെടുത്തിട്ട് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ജോലി കഴിഞ്ഞു വന്ന് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പിറ്റേ ഞായറാഴ്ച ദിവസമൊക്കെ ലീവായിരിക്കും അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ കുടുംബത്തോടെയൊക്കെ കൂടിയിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ്മെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക അതൊക്കെയെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ പുറമെയുള്ളൊരു ഹോബിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് പിന്നെ ഞാനിപ്പോൾ ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എനിക്ക് താത്പര്യമുള്ളത് എന്നുവേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ ക്യാരംസ് കളിക്കുക ഇപ്പോൾ ഇപ്പം കൂട്ടുകാരുമൊത്തിട്ട് താഴെ പോയി കുറച്ചുനേരം നമ്മൾ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചെയ്യും അപ്പോൾ അത് നല്ലൊരു മുന്നേറ്റമുള്ളൊരു കാര്യങ്ങളും ഇതൊക്കെയാണ്